ഓരോ ജോലിയും നമ്മുടെ ഒരോ വ്യക്തികളുടേയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ജോലി നമ്മളാഗ്രഹിക്കുന്ന ജോലി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി നമുക്ക് പൂർണ്ണ സംതൃപ്തിയോടെ ഇടപെടുവാനായിട്ട് സാധിക്കും എൻ്റെ കരിയറിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കരിയറിൻ്റെ ഭാവി ആ കരിയർ എത്തിപ്പെടാവുന്ന അതിൻ്റെ പരമാവധിയിലെത്തിച്ചേർന്ന് അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചേർന്ന് അത് ആസ്വദിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം നാമൊരു ജോലിയിലായിരുക്കുമ്പോൾ ആ ജോലിയിൽ നമുക്കെത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്നും ആ ഇടപെടലിലൂടെ മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരം ലഭിക്കുമെന്നും നാം ചിന്തിക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ഒരു ജോലി ആവശ്യപ്പെടുന്ന അതിൻ്റെ നന്മയും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ടോ അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവും അതിലൂടെ തന്നെ ഒരു ജോലീൽ നാം ഇടപെടുമ്പോൾ ആ ജോലീടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഉയർച്ച എത്രത്തോളമാണ് ആ ഉയർച്ച ആയുടെ അങ്ങേ അറ്റം വരെ പരിശ്രമത്തിലൂടെ എത്തിപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒരു ജോലിയിലൂടെ അത് സേവന മേഖലയാവാം എന്ത് മേഖലയും ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബന്ധതയുടെ ഒരുവശം കൂടിയുണ്ട് ആ ഒരു സാമൂഹ്യ പ്രതിബന്ധതയുടെ വശം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിജീവിതത്തിനും സാമൂഹ്യജീവിതത്തിനും ഉപകാരപ്രദമായ രീതിയിൽ ജോലി മുന്നോട്ട് വെയ്ക്കുന്ന സാധ്യതകളെ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കഠിനപരിശ്രമം വേണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം കാലത്തിനനുസരിച്ച് ഈ സമൂഹത്തെയും ജോലിയിലുണ്ടാവുന്ന മാറ്റങ്ങളേം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്ഡേഷനാണ് ഏറ്റവും പ്രധാനം കാലത്തിനന്യോജിച്ച് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് കുതിക്കുവാനുള്ളൊരു ശ്രമം കൂടി ഉണ്ടാകണം കഠിനപരിശ്രമവും അതിലൂടെ നമ്മുടെ ജോലിയുടെ പൂർണതയ്ക്കുവേണ്ട മറ്റ് സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജോലിയെ അതിൻ്റെ പൂർണ്ണതയിലുപയോഗപ്പെടുത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്